അതെ അതെ അതെ അതെ അതെ ആ ആ ആ ഓ എന്തോ ഓ ആ ആ ആ ആ ഇൻ്ററസ്റ്റുള്ളതല്ലേ ആ എന്നാൽ ആ ആ ആ

ആ അപ്പം ഇതിലാണ് താൽപ്പര്യമെങ്കിൽ സ്പേസിലാണ് താൽപ്പര്യം എങ്കിൽ ആ ടെൻത് കഴിഞ്ഞിട്ട് മോൾ പ്ലസ് ടുന് സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നത് ആയിരിക്കും നല്ലത് സയൻസ് എടുക്കുക സയൻസ് എടുത്തിട്ട് ആ പിന്നെ ഡിഗ്രി ഡിഗ്രിക്കാണ് പോവുന്നതെങ്കിൽ ബി എസ് സിക്ക് പോവുന്നതെങ്കിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പി ജി ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അത് അപ്പോൾ നമ്മൾ ഒന്നുകിൽ ആസ്ട്രോഫിസിക്സ് എടുക്കാം അല്ലെങ്കിൽ വെറും പ്യുവർ ഫിസിക്സ് എടുക്കുക ആ അപ്ലൈഡ് ഫിസിക്സ് പിന്നെ ഈ ഇതൊക്കെ എടുത്താൽ സ്പേസിൽ കുറച്ച് കൂടി നമുക്ക് ഇൻ്ററസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ മാത്തമാറ്റിക്സ് നല്ലതാണ് അത് എടുക്കാം പിന്നെ ആ ഡേറ്റ ഡേറ്റ എങ്കിൽ ഡേറ്റ സയൻസ് നല്ലതാണ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എസ് ആർ ഓയിൽ നല്ല നല്ല ചാൻസസ് കിട്ടും അപ്പോൾ ഈ ആസ്ട്രോഫിസിക്സ് ആ ആ പറയൂ ആ ഡിഗ്രിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ അവിടെ വെച്ചാൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് അവിടെ എല്ലാ അഡ്മിഷൻ കിട്ടുന്ന എല്ലാം ബേസ്ഡ് ഓൺ ദി എൻട്രൻസാണ് അപ്പോൾ എൻട്രൻസിന് നല്ല മാർക്ക് വേണം പ്ലസ് വണ്ണിന് മെറിറ്റ് കൂടി നോക്കും അപ്പോൾ ഒരു എബോവ് എയ്റ്റി ആ ഒരു നൈൻറ്റി പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ പ്ലസ് ടുന് കണ്ടെത്തി ഇരിക്കണം എന്നാലേ നമുക്ക് റാങ്ക് നല്ല പോലെ വരത്തുള്ളൂ പിന്നെ ആ മെറിറ്റ് മാത്രം പോരാ എൻട്രൻസ് ബേസ് ചെയ്ത് അവർ എടുക്കൂള്ളൂ എന്തായാലും അപ്പോൾ എൻട്രൻസിന് നമ്മൾ ജെനറലായിട്ട് എല്ലാം നമ്മൾ ഒന്ന് സക്സസ് ചെയ്തിരിക്കണം ഓ ഫിഫ്റ്റി പെർസെൻറ്റേജ് മെറിറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻട്രൻസ് കൂടെ ചേർത്തായിരിക്കും അവർ എടുക്കുക അവിടെ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് ഒരുപാട് ചാൻസസ് ഐ എസ്ഒ ആർ ഓയിൽ നമുക്ക് കിട്ടും പുറത്തോട്ട് പോവാൻ ഒക്കെ വളരെ നല്ല ചാൻസാണ് റിസെർച്ച് ചെയ്യാൻ താൽപ്പര്യം ഉള്ളവർക്ക് അത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആ പിന്നെ തീർച്ചയായിട്ടും സാലറി ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റ് സാലറി അല്ലേ നല്ല സാലറി ആയിരിക്കും പിന്നെ ഏജ് ഏജ് ലിമിറ്റും വളരെ കൂടുതലാണ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് ഏജ് ലിമിറ്റ് വേണം അതെ അതെ അതെ

ആ ആ എനിക്ക് ഇല്ലേ ആ അപ്പോൾ എന്തായാലും അതിന് മോൾ ഇപ്പോൾ ടെൻതായല്ലേ ഉള്ളൂ അപ്പോൾ നല്ല പോലെ പഠിക്ക് പഠിച്ചിട്ട് പ്ലസ് ടുവിന് നല്ല നല്ല ഏതെങ്കിലും സയൻസ് ബാച്ചെടുക്കാം സയൻസ് തെരഞ്ഞെടുത്തിട്ട് അതിലോട്ട് പഠിക്ക് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ആ ഓൾ ദി ബെസ്റ്റ് ഓക്കെ ബൈ